മലയാള ഭാഷ ഏറ്റവും മഹത്തായ ഭാഷയാണ് എല്ലാവർക്കും പറയാവുന്ന എല്ലാവർക്കും പറയാവുന്ന ഏറ്റവും വളരെ ഭംഗിയുള്ള ചിട്ടയായ ഭാഷയാണ് മലയാളികളിൽ മലയാളം പറയാത്ത നാട് ഈ രാജ്യത്ത് കുറവ് തന്നെയാണ് അത് ഏറ്റവും ഭംഗിയായി നമുക്ക് പറയാവുന്നത് മലയാളത്തിന് അതിൻ്റെതായ തനിമയുണ്ട് ആർക്കും പെട്ടന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു ഭാഷയാണ് മലയാളം നമുക്ക് മലയാളികൾക്ക് മറ്റ് ഭാഷ അത്ര എളുപ്പമാവില്ല പറയാം പക്ഷേ മറ്റ് ഭാഷകൾ ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് അവർക്കെല്ലാം മലയാളം പെട്ടന്ന് പരിചയപ്പെടും അവർക്ക് പെട്ടന്ന് അത് പഠിക്കുവാനുള്ള ഒരു ഏറ്റവും ലളിതമായ ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് അത് ഏറ്റവും ലളിതമായ രീതിയിൽ ഏറ്റവും അർത്ഥവത്തായതും ലളിതവും സുന്ദരവുമായ ഒരു ഭാഷയാണ് മലയാളം മറ്റുള്ള ഭാഷകളെ അപേക്ഷിച്ച് ഏറ്റവും സിമ്പിൾ ലാംഗ്വേജ് ആണ് മലയാളം മറ്റുള്ള ഒരു പക്ഷേ മലയാളികൾക്ക് മറ്റുള്ള ഭാഷകൾ പറയുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഒരു മറ്റ് ഹിന്ദിക്കാർ അല്ലെങ്കിൽ തെലുങ്ക് കന്നട അവർക്കൊക്കെ മലയാളം പഠിക്കുവാൻ ഏറ്റവും വളരെ അത്രയ്ക്ക് സിമ്പിളും തനിമയുള്ളതും ശുദ്ധിയുള്ള ഒരു ഭാഷയാണ് മലയാളം മലയാളത്തിൻ്റെ ചാരുത വളരെയൊന്നാണ് എല്ലാ മലയാളികളും അത്രയും എല്ലാവരും മലയാളം ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായി നമുക്ക് ചൊല്ലാവുന്നതാണ് അതിൻ്റെ അതുകൊണ്ടാണ് മറ്റുള്ള ഭാഷ അന്യജാതിക്കാരെ മറ്റുള്ള ജാതിക്കാരല്ല മറ്റുള്ള ഭാഷകളുടെ മലയാളം പെട്ടന്ന് പഠിച്ചെടുക്കുന്നത് തന്നെ